കസ്റ്റമർ ആണോ അല്ല

ഇത് മസാജ് സെൻ്റർ അല്ലേ എൻ്റെ പേര് ജിൻസി ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുവാണേ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിട്ട് അതിനൊരു ട്രീറ്റ്മെൻറിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിച്ചത് എന്തൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെൻറുകളാണ് നിങ്ങൾ നോക്കുന്നത്

തിരുമ്മൽ പോലെയുള്ള എന്തെങ്കിലും ആ അതിൻ്റെ എത്ര സമയത്തെ കാലാവധിയാണ് എനിക്ക് എൻ്റെ ഡെലിവറിക്ക് ശേഷമുള്ള ബാക്ക് പെയിൻ ആണ് പുറം വേദന ജോലി ചെയ്യാൻ മേല ചില ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതേ

ആ എത്ര ഒരു മാസത്തേക്കാണോ ഇരുപത്തയ്യായിരം അപ്പം ആൾ അവിടെ വന്ന് താമസിക്കാം അല്ലേ

ആഹാരവും താമസവും എല്ലാം അവിടെ ഉണ്ട് ഓ

ആ ഓ അത് ഞാൻ ഒരു ഇത്തിരി വെയിറ്റ് ഉള്ള ആളാണ് അത് ഇത്തിരി വണ്ണം ഉള്ള ആളാണ് അപ്പം അങ്ങനെ ഉള്ളപ്പം ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ഡോക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണോ അതോ

അതായിരിക്കും ആ ശരി അതിന് മുൻകൂർ പൈസ തരണോ അതോ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണോ പൈസ അത് ഏത് ഇപ്പം അവൈലബിൾ ആണോ എന്നത്തേക്ക് വരണം ആ ശരി വരും

ശരി ഓക്കെ ശരി ആ ശരി ഓക്കെ ശരി ഓക്കെ